വ്യായാമവും യോഗവും തമ്മില് അത്യാവശ്യം നല്ല വ്യത്യാസങ്ങളുണ്ട് രണ്ടും ഞാൻ ചെയ്യാറുള്ളതാണ് ഞാൻ ഓരോ ചില ദിവസങ്ങളിൽ വ്യായാമവും ചില ദിവസങ്ങളിൽ യോഗയും ചെയ്താണ് ഞാൻ എന്റെ ദിവസം ആരംഭിക്കാറ് വ്യായാമവും യോഗയും തമ്മില് വ്യത്യാസം എന്നാന്ന് ചോദിച്ചാല് വ്യായാമത്തില് കുറച്ചുകൂടെ നമ്മള് വർക്കൌട്ടൊക്കെ ചെയ്യുന്നതെന്നു പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡാണ് അതില് കുറച്ചുകൂടെ വേഗത്തിൽ നമ്മള് ചെയ്യുന്നതാണ് വ്യായാമം പക്ഷെ യോഗ എന്നു പറഞ്ഞാല് ഒരു കൈന്ഡ് ഓഫ് റിലാക്സേഷനാണ് നമ്മള് സ്വസ്ഥമായിയൊരിടത്ത് ഇരുന്ന് ബേസിക്കലി ഇരുന്ന് പിന്നെ ശ്വാസം എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതായത് ശ്വാസവും നമ്മുടെ കൈകളുടെയൊക്കെ നമ്മുടെ കൈകള് കാലുകള് അയിന്റെയൊക്കെ മൂവ്മെന്സും ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഒക്കെ അല്ലാതെ അല്ലെങ്കില് നമ്മുടെ എന്താണു പറയുന്നെ നമ്മുടെ ബോഡി പാർട്ട്സൊക്കെ വച്ചിട്ടാണ് നമ്മള് അതിൻ്റെയൊക്കെ ചലനമൊക്കെ വച്ചിട്ടാണു നമ്മള് വ്യായാമം യോഗ ചെയ്യുന്നത് പക്ഷേ വ്യായാമമെന്നു പറയുന്നതും കുറച്ചുകൂടെ വേഗത്തില് നമ്മള് ചെയ്യുന്നതാണ് പിന്നെ നമ്മള് യോഗയിലെന്നു പറയുമ്പോള് കുനിയുമ്പോള് നമുക്ക് ശ്വാസം നമ്മള് വിടും അല്ലെങ്കില് നിവരുമ്പോള് ശ്വാസം എടുക്കുക അല്ലെങ്കില് അങ്ങനൊക്കെ എടുക്കുകയും വിടുകയുമൊക്കെ ചെയ്തിട്ടാണ് നമ്മള് യോഗയൊക്കെ ചെയ്യുന്നത് യോഗ സാധാരണ പല വിധത്തിലാണുള്ളത് യോഗയില്ത്തന്നെ ഒത്തിരി ഇതുണ്ട് ബോഡി ഫുള് ഇരുന്നു ചെയ്യുന്ന യോഗയുണ്ട് സ്ട്രെസ്സിനുവേണ്ടി മാത്രമുള്ള യോഗയുണ്ട് ഇന്നിപ്പോള് ബോഡി പാർട്സിന് ഇന്നയിന്ന ബോഡി പാർട്സിനുവേണ്ടി കണ്ണിനു വേണ്ടിയിട്ടല്ലെങ്കില് ഫേസിനു വേണ്ടിയിട്ടുള്ള യോഗയുണ്ട് പിന്നെ നമ്മള് റിലാക്സാകാന് വേണ്ടിയിട്ടുള്ളതുണ്ട് അല്ലെങ്കില് നമ്മുടെയൊക്കെ സ്റ്റൊമക്കിനു വേണ്ടിയിട്ടുള്ളതുണ്ട് ഇങ്ങനെ ഇപ്പോഴാണെങ്കില് സ്റ്റൊമക്കിനു നമ്മുടെ സ്ട്രെസ്സിനു വേണ്ടിയിട്ടും ഷോൾഡർ ഷോൾഡറിൻ്റെ ആ റീലീഫ് നമ്മുടെ ചിലവര്ക്കിങ്ങനെ ഷോൾഡറൊക്കെ ഇങ്ങനെ സ്റ്റിഫായിരിക്കുമല്ലോ അപ്പോള് അതൊക്കെ അതൊക്കെ അതിന്റെ ഒന്ന് കൂളാവാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള യോഗയുണ്ട് പിന്നെ വ്യായാമം ചെയ്തുകഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല ഒരു വ്യത്യാസം യോഗയും വ്യായാമവും തമ്മിലുള്ള വ്യത്യാസം എന്നാന്നു പറഞ്ഞാല് നമ്മള് വർക്കൗട്ടൊക്കെ ചെയ്തുകഴിയുമ്പോള് ഭയങ്കരമായിട്ട് നമ്മള് ദേഹം മൊത്തം ഇതായിട്ടായിരിക്കും കുറച്ചുകൂടെ ഞാന് പറഞ്ഞ പോലെ തന്നെ സ്പീഡാണല്ലോ അപ്പോഴതു ചെയ്തുകഴിയുമ്പോള് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരാനായിട്ട് സാധ്യതയുണ്ട് ഭയങ്കരമായിട്ട് നമ്മള് വിയര്ക്കും നമ്മള് റ്റയേഡാവും നമ്മള് നമ്മുടെ ബോഡി ഫുള് വർക്കെയ്തു അപ്പോഴതുകൊണ്ട് നമ്മളത് ചെയ്തു കഴിയുമ്പോള് ടയേഡാവും പക്ഷെ യോഗ ചെയ്തുകഴിയുമ്പോഴത്തേക്കും നമ്മളതൊരു കൈൻഡോഫ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുതന്നെ നമ്മളൊന്ന് എന്താ സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് യോഗ ചെയ്യുന്നത് നമ്മളെത്തന്നെ ഒന്ന് കാമാക്കാന് നമ്മളൊന്നു റിലാക്സാവാൻ ഇടയ്ക്ക് വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്ന് അപ്പോഴതില് ഇത്ര മൂമെന്സ് മൂമെന്സുണ്ടെങ്കില്ത്തന്നെ സ്ലോ മൂവ്മെൻസാണ് പ്രധാനമായിട്ട് യോഗയിലുള്ളത് അപ്പോള് യോഗ ചെയ്തുകഴിയുമ്പോള് നമുക്കൊരു ഉന്മേഷമാണ് കമ്പാരിറ്റീവിലി തോന്നാറുള്ളത് അപ്പോള് വ്യായാമം ചെയ്യുന്നതെന്നു പറയുമ്പോള് നമുക്ക് ക്ഷീണം തോന്നുവെങ്കില് ഇപ്പറേ വരുമ്പോള് യോഗ ചെയ്യുമ്പോള് നമുക്കൊരു ഉന്മേഷവും ഒരൂ എന്താ ഒരു കൈന്ഡോഫ് എനർജിയൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് ഫീലെയ്യും പിന്നെ നമുക്ക് എന്നാ ചിലപ്പോള് വ്യായാമൊക്കെ ചെയ്തു കഴിയുമ്പോള് മസിലൊക്കെ ഒന്ന് ടൈറ്റനായി അല്ലെങ്കിൽ മസിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് തോന്നുവാണെങ്കില് ചിലപ്പോള് തോന്നും പക്ഷെ നമ്മുടെ യോഗ ചെയ്തുകഴിയുമ്പോള് ഞാന് പറഞ്ഞതുപോലെ തന്നെ റിലാക്സേഷനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ഭയങ്കര റിലാക്സ്ഡാകും

ഭയങ്കര ലൂസനാവും നമ്മുടെ മനസ് മൈൻഡ് നമ്മുടെ ബ്രെയിന് അതെല്ലാം ക്ലിയറാവും നമ്മുടെ തോട്ട്സ് ക്ലിയറാവും നമ്മടെ വിഷൻ ക്ലിയറാവും അതൊക്കെയാണത് അപ്പോള് നമ്മളൊന്ന് ഫുള് റിലാക്സ്ഡാകും എസ്പെഷ്യലി നമ്മുടെ മസിൽസ് റിലാക്സാകും പക്ഷെ നമ്മുടെ വ്യായാമത്തിനെന്നു പറയുമ്പോൾ എന്നാ കുറച്ചുകൂടെ എന്താ പറയുന്നെ ഒരു പെരുപ്പ് അനുഭവപ്പെടാനാണ് സാധാരണ സ ഒരു സാധ്യത കൂടുതല് പിന്നെ എന്താ പറയുന്നേ പിന്നെ തുറസ്സായ സ്ഥലത്താണ് നമ്മള് യോഗ ചെയ്യുന്നത് തുറസ്സായ സ്ഥലത്തില് നമുക്ക് ഒരു പായയും ഒരു നീളന് പായയും നല്ല വെളിച്ചവും ഒക്കെ ഉള്ളിടത്ത് നല്ലൊരു എന്താ പറയുന്നെ ഇതു വരുന്ന സ്ഥലത്ത് ചെയ്യണമെന്നു പറയും നമ്മള്ക്കു വായു സഞ്ചാരമുള്ളടത്തിരുന്ന് യോഗ ചെയ്യണമെന്നു പ്രത്യേകം പറയാറുണ്ട് അപ്പോള് വായുസഞ്ചാരമുള്ളിടത്ത് അവിടൊരു തുറസ്സായ സ്ഥലത്ത് ഒരു ഇത്ര നീളമുള്ള പായ ഉണ്ടെങ്കില് നമുക്ക് യോഗ ചെയ്യാവുന്നതേ ഉള്ളു ആർക്കും യോഗ ചെയ്യാം

ഇപ്പോള് ഇപ്പോഴൊക്കെ കുറച്ചുകൂടെ യോഗയൊക്കെ എല്ലാവർക്കും താല്പര്യമാണ് ഇപ്പോള് എന്താ എനിക്ക് പറയുന്നു നമ്മുടെ ഈ ലോകമൊക്കെ ഇങ്ങനെ മാറി വരുവാണല്ലോയിപ്പോള് കൂടുതല് സ്ട്രെസോ വർക്ക് സ്ട്രെസ്സായിരിക്കും വീട്ടില് സ്ട്രെസ്സായിരിക്കും സ്ട്രെസ് സ്ട്രെസ് സ്ട്രെസ്സാണ് മൊത്തം അപ്പോള് കുറച്ചുകൂടെയൊക്കെ പക്ഷേ സ്ട്രെസ് ഒരു ഒരിടത്ത് സ്ട്രെസ് കൂടിവരുവാണെങ്കില് ഒരിടത്ത് വ്യായമത്തോടും വ്യായാമത്തോടല്ല മെയിൻലി യോഗയോടൊക്കെ ഭയങ്കര ഇഷ്ടം കൂടിവരുന്ന ഒരു തലമുറയുണ്ട് ഇന്ന് യുവ തലമുറയ്ക്കൊക്കെ യോഗയോടൊക്കെ ഒരു കൈന്ഡോഫ് ഇഷ്ടം കൂടി വരുന്നുണ്ട് കുറേ പേരത് പ്രാക്ടീസിയ്യാന് ശ്രമിക്കുന്നുണ്ട് കുറേ പേരത് നല്ല രീതിയില് പ്രാക്ടീസീയ്യാന് ശ്രമിക്കുന്നു ചുമ്മാ യൂ ട്യൂബ് നോക്കിയല്ലാതെ പ്രോപ്പർ സ്ഥലങ്ങളിൽ പോയി ഈവൻ കൺട്രീസ് വരെ മാറി പ്രോപ്പർ സ്ഥലങ്ങളില് പോയി പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസെടുത്ത് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ ആൾക്കാരിൽ നിന്ന് ഗൈഡൻസെടുത്ത് നല്ല രീതിയില് യോഗ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് പിന്നെ അപ്പോള് ഞാന് പറഞ്ഞല്ലോ അത് ഭയങ്കര മനസ്സിനെ ശാന്തമാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് മനസ്സിനെ തന്നെ നമുക്കൊന്ന് ഇതാക്കും ഞാന് പറഞ്ഞു സ്ട്രെസ് സ്ട്രെസ് വരാനുള്ള മെയിൻ കാരണമെന്നു പറഞ്ഞാല് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെത്തന്നെ ഭയങ്കര എന്താണു പറയുന്നെ പഠിച്ചു കഴിയുമ്പോള്ത്ത ന്നെ അല്ലെങ്കില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോള്ത്തന്നെ ഈവൻ ജോലി തുടങ്ങുന്നവരുണ്ട് അപ്പോള് നല്ല ചെറുപ്പത്തില്ത്തന്നെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങുന്നവരാണ് അപ്പോള് അവർക്കെന്നു പറയുമ്പോള് അതിന്റേതായ ജോലിഭാരം കാണും അതിന്റേതായ ബുദ്ധിമുട്ടുകള് കാണും ഞാന് പറഞ്ഞല്ലോ സ്ട്രെസ് കാണും അപ്പോള് നേരത്തത്തെ പോലെയല്ല ഇപ്പോള് കുറച്ചുകൂടെ എന്താ എല്ലാത്തിനും എടുത്തു ചാടുന്നവരും അല്ലെങ്കില് എല്ലാത്തിനും ഓപ്പണായിട്ടുള്ളവരും ആണ് കുട്ടികളൊക്കെ ആണേലും യുവ തലമുറയിലുള്ളവരാണേലും അതുകൊണ്ടു തന്നെ അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളും കൂടുതലാണ് അപ്പോള് അങ്ങനെ വരുമ്പോള് അവർക്കീ യോഗയിലോട്ടുള്ള ഇൻട്രസ്റ്റും അല്ലെങ്കില് മൈൻഡ് റിലാക്സ്ഡാവാൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ളവരാണ് അപ്പോള് ഇങ്ങനത്തെ സമ്മര്ദ്ദമൊക്കെ മറികടക്കുന്നതു തന്നെ ഈ യോഗ ചെയ്യുമ്പോഴായിരിക്കും പലരും ഇപ്പോള് പറഞ്ഞുകേള്ക്കുന്നത് ഞാന് തന്നെ യോഗ സ്റ്റാർട്ടെയ്തത് ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഇല്ല ദേഷ്യം ഭയങ്കരമായിട്ടൊന്ന് കുറയ്ക്കാനായിട്ടു ഞാനാഗ്രഹിച്ചു അപ്പോഴിങ്ങനെ യോഗ കുറേ പേര് നല്ലൊരു ഇത് വന്നപ്പോള് ഞാനോർത്തു വൈ ഷുഡ്ന്റൈ ട്രൈ അപ്പോള് ഞാനങ്ങനെ ഓർത്ത് യോഗ ചെയ്യാനായിട്ട് ആരംഭിച്ചു പക്ഷെ എനിക്ക് ഭയങ്കര വ്യത്യാസമായിരുന്നു വന്നത് എന്റെ മൈൻഡൊക്കെ റിലാക്സ്ഡാവും അപ്പോള് ആ യോഗ പ്രാക്ടീസെയ്യുമ്പോള് അവര് തന്നെ പറയുന്നുണ്ട് നമ്മള് ആഴ്ചയില് അല്ലെങ്കില് മാസത്തിലൊന്നും ഒരു രണ്ടു മണിക്കൂര് നിന്നു ചെയ്യുന്നതല്ല ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവെന്നു പറയുന്നത് ഒരു ദിവസം അഞ്ച് മിനിറ്റെങ്കില് അതല്ലെങ്കില് രണ്ട് മിനിറ്റെങ്കില് അതു നമ്മള് കണ്ടിന്യൂസായിട്ട് അല്ലെങ്കില് എന്താ പറയുന്നേ കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യുന്നതിലാണ് പ്രധാനം നമ്മളെല്ലാ ദിവസവും ചെയ്യണം അല്ലെങ്കില് വർഷത്തില് നമ്മള് അല്ലാ ആഴ്ചയിലോ അല്ലെങ്കില് മാസത്തിലോ നമ്മള് ഒരു രണ്ടു മണിക്കൂര് ഇരുന്നു ചെയ്യുന്നു എന്നു പറയുന്നത് നമ്മള് യോഗിയാവത്തില്ല അല്ലെങ്കില് യോഗ ചെയ്യുന്നതിനു ബെനിഫിറ്റ് അത്ര നല്ലതായിട്ട് കിട്ടണമെന്നില്ല പക്ഷെ നമ്മള് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഇത്ര ഒരു ഇത്ര നേരം എല്ലാ ദിവസവും മിസ്സാക്കാതെ ചെയ്യുന്നതിലാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു എഫക്ടിരിക്കുന്നെന്നാണ് എനിക്കു തോന്നിയിട്ടുള്ളത് പിന്നെന്താണു പറയുന്നത് ഇപ്പോഴെനിക്കു തോന്നുന്നു പല ഓഫീസുകളിലും തുടങ്ങുമ്പോള്ത്തന്നെ ചെറിയൊരു യോഗയൊക്കെ ചെയ്ത് തുടങ്ങുന്നവരുണ്ട് പണ്ടത്തെ ചേക്കപ്പ്ന്സ് ടെക്നിക്കൊക്കെ ചെയ്ത് അതൊക്കെ ഭയങ്കര ഫേമസായിട്ടുള്ള ടെക്നിക്സാണല്ലോ പിന്നെ മൈൻഡ് റിലാക്സേഷൻ ടെക്നീക്സൊക്കെ ഉണ്ട് ബ്രീത്തിങ്ങ് ടെക്നീക്സൊക്കെ ഉണ്ട് അതൊക്കെ യോഗയുടെ പ്രധാനപ്പെട്ടൊരു എന്താ പറയുന്നേ പാർട്ട്സാണ് അല്ലെങ്കില് അതിൻ്റെ തന്നെ പല രീതിയിലുള്ള ഇതാണ് പല രീതിയിലുള്ള യോഗകളാണ് നമ്മളുടെ മൈൻഡിനെ റിലാസ്ഡാക്കാനൊക്കെയായിട്ട് സഹായിക്കുന്നത് പിന്നെ ഞാന് പറയുന്ന പോലെതന്നെ ഓഫീസിലൊക്കെ തന്നെയാണേലും ഇപ്പോള് യോഗ ചെയ്ത് സ്റ്റാർട്ടെയ്യുന്ന ഒരു പോളിസി സ്റ്റാർട്ടെയ്തിട്ടുണ്ട് മിക്ക കമ്പനി കോർപ്പറേറ്റ് കമ്പനികളില് പ്രത്യേകമായിട്ട് യോഗയൊക്കെ ചെയ്ത് മൈൻഡൊന്ന് റിലാക്സെയ്തല്ലെങ്കിലൊരു ബ്രീതിങ് എക്സസൈസ് കസേരകളിയില്ത്തന്നെ ഇരുന്നു ചെയ്യാന് പറ്റുന്ന കുറച്ച് യോഗ ഒന്നു രണ്ടു യോഗ സ്റ്റെപ്സൊക്കെ ചെയ്തിട്ടായിരിക്കും അവരവരുടെ വർക്ക് സ്റ്റാർട്ടേയ്യുന്നത് അപ്പോള്ത്തന്നെ മൈൻഡൊന്ന് റിലാക്സ്ഡായി ഒന്ന് കൂളാകാനായിട്ട് ഇതു കൊണ്ടവർക്കു സാധിക്കുന്നുണ്ട് പിന്നേ

യോഗ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഒരു സമയവും ക്ഷമയും ഒക്കെ വേണ്ടേഎന്നു പലരും ചോദിക്കാറുണ്ട് പക്ഷെ ഇപ്പോള് നമ്മുടെ യോഗ ചെയ്യുമ്പോള് നമ്മുടെ ക്ഷമ കൂടുവല്ലോ അതായത് നമുക്ക് യോഗ ചെയ്യാൻ മെയിനായിട്ട് സമയവും വേണം ക്ഷമയും വേണം എന്നാലേ ഒരെഫക്റ്റായിട്ട് നമ്മള് ചുമ്മായിതെന്താ അഞ്ച് മിനിറ്റ് എന്തേലും ചെയ്തിട്ട് പോവാനുള്ളതല്ല അതില് നമ്മള് ക്ഷമയോടെ അതില്ഇൻവെസ്റ്റ് നമ്മുടെ ടൈം ഇൻവെസ്റ്റെയ്ത് നമ്മള് എന്താ ഹാർട്ട് ഫുള്ളി ചെയ്യണം അപ്പോഴങ്ങനെ ചെയ്യുമ്പോള് എന്താണ് സംഭവിക്കുന്നതെന്നുവച്ചാല് നമ്മള് യോഗ ക്ഷമയോടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷമ കൂടും ഒബിയസിലി നമ്മുടെ ക്ഷമ കൂടും അപ്പോഴതില് നമുക്ക് ഫലം കണ്ടുതുടങ്ങും നമ്മളീ ചെറിയ ചെറിയ ഒരഞ്ച് മിനുറ്റ് നമ്മള് ക്ഷമ പശീലിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് യോഗയിലൂടെ എന്നു പറഞ്ഞാല് നമുക്കിപ്പോള് ദേഷ്യമുള്ളവര് മേ ബീ എൻ്റെ എന്റേതിലും അതു തന്നായിരിക്കും വര്ക്കായത് ഞാന് ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളാണ് അപ്പോള് ഞാന് പതിയെപ്പതിയെ യോഗ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കെന്താണ് എൻ്റെ പതിയേ ഞാൻ അതില് ടൈം ഇൻവെസ്റ്റെയ്തുതുടങ്ങി ഞാൻ ക്ഷമ കാണിക്കാനായിട്ട് ഇത്ര സമയമെടുക്കുന്ന പ്രോസസായതുകൊണ്ടു തന്നെ ഞാൻ ക്ഷമ ഇതു ചെയ്തു

ഒക്കെ സ്വാഭാവികമായും കുറയും അതായത് അതിനുള്ള നമ്മള് സമയവും ക്ഷമയും കാണിക്കുന്നതിൻ്റെ ഫലം എന്തായാലും യോഗയിലൂടെ കിട്ടും അപ്പോള് ഇത്രൊക്കെയാണ് ഇനി യോഗയും വ്യായാമവും തമ്മിലുള്ള വ്യത്യാസമെന്ന് എനിക്കു തോന്നിയിട്ടുള്ളത്